ഹലോ ജിനി ഹായ് ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ ആ സുഖമായിട്ടിരിക്കുന്നു ആലപ്പുഴ സൈഡിലല്ലേ ജിനി താമസിക്കുന്നത് അതെ അതെ അപ്പം വെള്ളപ്പൊക്ക ഭീഷണി നേരിടാറുണ്ടോ പിന്നേ ഉണ്ട് ഉണ്ട് ഞങ്ങളുടെ ഇവിടെ വെള്ളം എപ്പോഴും ഇങ്ങനെ ഒരു ഒരു മഴ പെയ്താൽ വെള്ളം അങ്ങ് പൊങ്ങി വരും താഴ്ന്ന സ്ഥല യത്കൊണ്ട് കെടങ്ങറാന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന സ്ഥലമാണ് അത്കൊണ്ട് ചെറിയ മഴ പെയ്യുമ്പോഴേ വെള്ളം ഇങ്ങു എത്രയോളം പൊങ്ങമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടായിരത്തി പതിനേഴിലൊക്കെ വെള്ളമെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിലൊട്ടൊക്കെ ഇറങ്ങുമ്പം അരയ്ക്ക് മേളിലോട്ടു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മഴ വരുമ്പോഴേ എല്ലാരും ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര പേടിയും ഇതുമായിട്ട് ആവശ്യ സാധനങ്ങളൊക്കെ പെട്ടെന്നു തന്നെ വാങ്ങിക്കാൻ വേണ്ടി പോവും കാരണം പേടിയാണ് വെള്ളം മുങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കത്തില്ല അത്കൊണ്ട് പിന്നെ വണ്ടി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മഴ പെയ്യുന്നത് കാണുമ്പോൾ തന്നെ പെട്ടെന്നു പോയി എന്തെങ്കിലുമൊരു സൂചന കിട്ടുമ്പോഴേ പോയി സാധനങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിക്കുക പിന്നെ അത് പോലെ തന്നെ മെഡിസിൻസ് ഒരു പനി ഒരു മഴ പെയ്തു എന്തെങ്കിലുമൊരു കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊരു ചെയ്ഞ്ച് വന്നാൽ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളവർകൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മരുന്ന് വാങ്ങിക്കുക അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക ഇപ്പം തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് പിന്നെ അത്പോലെ തന്നെ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി വീട്ടിൽ എന്തായാലും വെള്ളം കയറും നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുക പൊക്കി വയ്ക്കുക ടി വി എടുത്ത് മാറ്റുക ഫ്രിഡ്ജ് മാറ്റുക പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മഴ പെയ്യുമ്പോൾ അറിയാലോ കറൻണ്ട് ഉയിരിക്കത്തില്ല നെറ്റ്വർക്ക് ഇല്ല ഫോൺ കോൾ ഇല്ല അത്യാവശ്യം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഒരു ഫെസിലിറ്റീസൊന്നും വെള്ളമുണ്ടായിരിക്കത്തില്ല ആവശ്യം ഒരു ആവശ്യത്തിനു പോലും നമുക്ക് വെള്ളമുണ്ടായിരിക്കത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരും അനുഭവിക്കുന്നത് താഴ്ന്ന സ്ഥലമായതു കൊണ്ട് എല്ലാ വീടുകളും പല വീടുകളിലും ഒന്ന് മഴ പെയ്യുമ്പോൽ തന്നെ ഭയങ്കരമായിട്ട് വെള്ളം മുങ്ങി ഭയങ്കര പ്രശ്നങ്ങളിലാണ് പിന്നെ എല്ലാവരും ഇവിടെ നിന്ന് മാറി മാറി പോകും ക്യാമ്പുകളിലേക്ക് മാറും അതൊക്ക ഒരു ക്യാമ്പൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമൊക്കെയാണ്